മുപ്പത് അഞ്ച് രണ്ടായിത്തി രണ്ട് രണ്ട് ആറ് രണ്ടായിരത്തിപ്പത്തൊമ്പത് മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്